ഒരു ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രഭാതത്തിനുള്ള ഇഡലിയും സാമ്പാറുമൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഹസ് ഭർത്താവ് ജോലിക്ക് പോയി മക്കളൊക്കെ സ്കൂളിലും പോയി അപ്പോഴാണ് ഒരു പത്തു മണിയൊക്കെ ആയപ്പോൾ പെട്ടെന്നു വീട്ടിലേക്ക് കുടുംബത്തിലുള്ള ഒരാൾ വിവാഹം ക്ഷെ വിവാഹം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നു ആൾക്ക് ചായയുടെ കുടെ കൊടുക്കാൻ പലഹാരം ഒന്നുമില്ലയിരുന്നു വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ് കട കടയിലേക്കു പോകാൻ ആരുമില്ല അയൽവാസിയെ വിളിച്ചു അവൻ ജോലിക്ക് പോയിരിക്കാ എന്നു പറഞ്ഞു പിന്നെ കുടുംബക്കാരനടുത്തുക്കൂടല്ലെ കണ്ടായിരുന്നു അവരർ സ്ഥലത്തില്ല ദൂരെ യാത്രയിലാണെന്നു പറഞ്ഞു അപ്പോൾ ഇനി എന്തു ചെയ്യും ചായക്ക് എന്തെങ്കിലും കൊടുക്കണ്ടെ കാപ്പിയുടെ കൂടെ എന്തു ചെയ്യുമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അതിലെ പെട്ടെന്ന് ഭർത്താവിനെ വിളിച്ചു എന്താ ചെയ്യുക എന്നു ചോദിച്ചിട്ട് അപ്പോൾ ഫ്രിഡ്ജിൽ എന്തേ ഇരിപ്പുള്ളതെന്നു ചോദിച്ചു ഫ്രിഡ്ജിൽ ഒന്നുമില്ല ചിക്കനോ ബീഫോ മീനോ ഒന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണ ഒന്നുമില്ല എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു ഇവരുടെ കൂടെയാണെങ്കിൽ ചെറിയൊരു മോളും ഉണ്ടായിരുന്നു മോൾക്ക് വിശക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ ചെറുതെന്തെങ്കിലും കൊടുത്താലും പറ്റില്ല അങ്ങനെ ആലോചിച്ചിരുന്ന സമയത്താണ് ഇഡലിയുണ്ടാക്കിയതിൻ്റെ മാവ് ബാക്കി ഫ്രിഡ്ജിലിരിപ്പുണ്ട് കുറച്ച് മാവ് എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം പോയിട്ട് ആ മാവെടുത്തിട്ട് പെട്ടെന്നു ഉള്ളിയും കിഴങ്ങും ഒക്കെ നന്നാക്കിയേച്ച് മസാല ഒക്കെ റെഡിയാക്കിയേച്ച് ഞാൻ മസാലദോശ ഉണ്ടാക്കി മസാലദോശ ഉണ്ടാക്കിയിട്ട് ആ കുട്ടിയെ വയറ് നിറച്ചു കഴിച്ചു അവർ തിരിച്ചു പോയി അവർക്ക് സന്തോഷമായി അങ്ങനെ ഞാൻ അപ്പോഴത്തെ ഗട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ചിക്കനും ബീഫും മീനും ഒന്നുമില്ലെങ്കിലും പെട്ടെന്നു അതുണ്ടായതു കൊണ്ട് ഞാനാ അത്യാഹിത ഘട്ടം കടന്നു പോയി